ആ ക്യാബ് ഏജൻസി അല്ലേ ആ എനിക്കൊരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരുന്നേ അതെ അതെ ഇപ്പം ഞാൻ ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാവൂർ ആണ് അപ്പം മാവൂരിൽ എനിക്ക് ഒന്ന് എയർ പോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആ അതെ അതെ അതെ ഏകദേശം എത്ര രൂപ വരും എയർപോർട്ട് വരെ ഞാനെ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കറക്റ്റ് ടൈമിന് അവിടെ എത്തണം ആ ഓക്കേ ഓക്കേ ആ ആ രാവിലെ എനിക്ക് ഫ്ലൈറ്റ് എത്ര മണിക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് പതിനൊന്ന് മണിക്കാണ് പക്ഷെ അതിന് മുന്നേ ഒരു മണിക്കൂറ് മുന്നേ അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒരു പത്ത് ഒമ്പതര ഒരു ഒമ്പത് മണിക്ക് തന്നെ കറക്റ്റ് അവിടെ എത്തിക്കണം ഏകദേശം എത്ര ടൈമ് ഇവിടുന്ന് ഇപ്പം മാവൂര് മാവൂരിൽ നിന്ന് എത്ര ടൈം വരും അവിടെ എത്തണമെങ്കിൽ ആ ഹാ ഹാ മാക്സിമം ഒരു മണിക്കൂറ് വരും അല്ലേ ഓക്കെ ആ ഒരു മണിക്കൂറ് ഒന്നര ആ ഒന്നേകാല് ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കില് ഞാന് നിങ്ങളിപ്പം ഒരു ഏഴുമണിക്ക് പോരെ എന്തായാലും ഏഴുമണിക്ക് പോന്ന് കഴിഞ്ഞാല് നമുക്ക് മെല്ലെ പോയാൽ മതിയല്ലോ നമുക്ക് തിരക്ക് പിടിച്ചൊന്നും പോകണ്ടല്ലോ ഒരു എനിക്ക് ഒരു ഒമ്പത് മണി ആകുമ്പോൾ എത്തിയാൽ മതി ജസ്റ്റ് മെല്ലെ പോയാൽ മതിയല്ലോ ആ ഓക്കെ അങ്ങനെ ആണെങ്കില് ഏഴ് മണിക്ക് നിങ്ങള് കറക്റ്റ് എത്തും അല്ലെ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കില് നാളെ രാവിലെ ഏഴ് മണിക്ക് ഒന്ന് എത്തിക്കണം കേട്ടോ കാരണം എനിക്ക് നാളെ എന്തായാലും എന്തായാലും വരണം വരാണ്ടിരിക്കരുത് കാരണം എനിക്ക് അർജൻറ്റ് ആയിട്ടുള്ള മീറ്റിംഗ് പോകാൻ വേണ്ടിയിട്ടാട്ടോ കെട്ടോ ഓക്കെ ഓക്കെ ഞാൻ വണ്ടി എൻ്റെ അടുത്ത് വണ്ടി ഉണ്ട് പക്ഷെ ഞാൻ വണ്ടി എടുക്കാന് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അവിടെ വെക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ക്യാബ് ബുക്ക് ചെയ്തത് ആ ഓക്കെ ഓക്കെ എന്നാൽ നാളെ കറക്റ്റ് ഒരു ഏഴ് മണി ആകുമ്പോൾ പോരെ ഓക്കെ